മലയാള ഭാഷ ഇന്നും നല്ല രീതിക്ക് മുന്നേറി പോകുന്ന ഒരു ഭാഷ തന്നെയാണ് അത് റേഡിയോയിലായാലും ടെലിവിഷനിലായാലും അച്ചടിയിലായാലും റേഡിയോയോയില് ഇന്നും നിരവധി പ്ലാറ്റുഫോമുകൾ മലയാള ഭാഷയുടെ ആ ഒരു മഹത്വത്തിൻ്റെ കാര്യങ്ങളെ ഉണർത്തി കൊണ്ട് പല പരിപാടികളും നടത്തണുണ്ട് ടെലിവിഷനിലായാലും നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട് പത്രത്തില് അച്ചടി മാധ്യമങ്ങളായുള്ള പത്രം ഇന്നും മലയാളികളുടെ ഒരു അറിവിലേക്ക് അറിവ് പകരുന്ന ഒരു മാധ്യമമാണ് അച്ചടി ഇതിലൂടെ മലയാള ഭാഷ നൽകുന്നു കാലങ്ങളായിട്ട് ഇപ്പോഴും പിന്തുടരുന്ന ഒരു രീതിയാണ് മലയാള ഭാഷ ഇന്നും മലയാളികളുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു മാധ്യമമാണ് അച്ചടിഭാഷ ഇതിലൂടെ അതുകൊണ്ട് മലയാളത്തിൻ്റെ മഹത്വത്തെ ഇന്നും നല്ല രീതിക്ക് വാനോളം ഉയർത്തുവാനും നിരവധി കവികളും സ് ഗായകന്മാരും തിരക്കഥാകൃത്തുക്കളും എല്ലാം സിനിമയുടെയും ടെലിവിഷൻ ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും ഇന്നും മലയാളിത്വത്തിൻ്റെ ആ ഒരു തനിമ ഇന്നും ഉയർത്തിക്കൊണ്ട് വരികയാണ്